ധാരാളം ബുക്കുകളൊക്കെ വായിക്കാറുണ്ടെങ്കിലും ഇപ്പം പൊതുവായിട്ട് ഞാൻ ബൈബിള് വായിക്കാനാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ബൈബിളിൽ റീറീഡിങ്ങുണ്ട് ഓരോ പ്രാവിശ്യം വായിക്കുമ്പോഴും അതിന് ഓരോ പുതുമ കാണപ്പെടുന്നുണ്ട് ബൈബിള് എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ ഒരു സംഗ്രഹമാണെങ്കിലും എഴുപത്തിമൂന്ന് വ്യക്തികൾ അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഇവർ തമ്മിൽ യാതൊരു വിധ ബന്ധങ്ങളുമില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയോ ഇവർ ബന്ധപ്പെടാൻ ഫോണിലൂടെയോ ഒന്ന് ബന്ധപ്പെടാൻ ഒരു സാഹചര്യം ഇല്ലാഞ്ഞിട്ടും ഈ എഴുപത്തി മൂന്ന് ഗ്രന്ഥകർത്താക്കളെഴുതിയ ഗ്രന്ഥങ്ങളെല്ലാം കൂടെ ചേർത്ത് വച്ച എഴുപത്തി മൂന്ന് പുസ്തങ്ങങ്ങളുടെ ഒരു സംഗ്രഹമാണ് ബൈബിൾ അതൊരു കണ്ടിന്യൂറ്റി അതിൽ കാണുന്നുണ്ട് ബൈബിളിൻ്റെ ആദ്യത്തെ

പഞ്ചഗ്രന്ഥികൾ എന്ന് അറിയപ്പെടുന്നു ഈ പഞ്ചഗ്രന്ഥികൾ മോശ വഴി നല്കപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളതാണ് വിശ്വാസം വിശ്വാസം നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് പിന്നെയുള്ളത് പ്രവാചക ഗ്രന്ഥങ്ങളുണ്ട് പ്രവാചക ഗ്രന്ഥങ്ങൾ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരുടെയും ഒക്കെ റേഡ്യൻസ് റൈറ്റ് പുസ്തകത്തിൽ കാണാൻ സാധിക്കും അനേകം പ്രവാചകന്മാരെ നമുക്കിവിടെ കാണാനും സാധിക്കും അതുപോലെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ ഇരുപത്തിയേഴ് പുസ്തകങ്ങളാണ് അവിടെ ചേർക്കപ്പെട്ടിട്ടുള്ളത് അതിലാദ്യത്തെ നാലെണ്ണം സുവിശേഷങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് മത്തായി മാർക്കോസ് ലൂക്കാ യോഹന്നാൻ എന്നീ ലേഖനങ്ങളാണ് ഈ സുവിശേഷന്മാരുടെ ലേഘനങ്ങളാണ് ആദ്യത്തെ നാലെണ്ണം പിന്നെ അപ്പോസ്തല പ്രവർത്തനം പിന്നെ പൗലോസ് ശ്ലീഹായടെ ലേഘനങ്ങൾ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പൗലോസ് ശ്ലീഹായുടെ ലേഘനം എന്നു പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു സമൂഹത്തിന് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുടെ മൂല്യം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളുടെ പ്രത്യേകത ആ ലേഘനങ്ങൾ ഓരോ സമൂഹത്തിന് വേണ്ടി കേൾക്കാം വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ കാരണമാകും അത് ഈശോയ്ക്ക് ശേഷം ആ സഭയെ മുന്നോട്ട് നയിക്കാൻ ആരുമില്ലാതെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു പ്രത്യാഗമനം വരാൻ താമസിക്കുന്നു എന്നുള്ള പറഞ്ഞപ്പോൾ ജനങ്ങളെ പുറകോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ പൗലോസ് ശ്ലീഹാ ഓരോ സമൂഹത്തെയും പിടിച്ച് നിർത്താൻ വേണ്ടി അവരുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഓരോ കത്തുകളാണ് ഓരോ ലേഖനങ്ങൾ വളരെ മനോഹരമാണ് ആ ലേഖനങ്ങളൊക്കെ പിന്നീടുള്ളത് യാക്കോബ് ശ്ലീഹായുടെ ലേഘനവും പത്രോശ്ലീഹായുടെ ലേഘനവും അങ്ങനെ ഈ യോഹന്നാൻ ശ്ലീഹാടെ ലേഘനമൊക്കെ ഒന്ന് കാണാൻ സാധിക്കും ഏറ്റവും അവസാനത്തെ ബൈബിളിൽ ഏറ്റവും അവസാനത്തെ ഗ്രന്ഥം എന്നു പറയുന്നത് വെളിപാട് ഗ്രന്ഥമാണ് വെളിപാട് ഗ്രന്ഥം അത് ഒത്തിരി വെളിപ്പെടുത്തൽ ഒരു പരിശുദ്ധ അമ്മയ്ക്ക് യോഹന്നാന് ലഭിച്ച വെളിപാടാണ് അതിനേക്കുറിച്ച് മെയിനായിട്ട് പറയുന്നത് സഭയും സഭയുടെ കാഴ്ചപ്പാടുകളേയും ഒക്കെ വ്യക്തമാക്കുന്നതാണ് ഈ വെളിപാട് ഗ്രന്ഥങ്ങൾ അങ്ങനെ ഈ എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ ചേർന്നൊരു നല്ല ഒരു ഗ്രന്ഥമാണ് ബൈബിൾ നമ്മൾ മറ്റു പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വായിച്ച് തീരും അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്നത് പോലെ തന്നെ കഥപോലെ വായിക്കാൻ പറ്റുന്നതും എന്നാലും നമ്മുടെ ആത്മീയ ജീവിതത്തിനും വ്യക്തിപരമായ ജീവിതത്തിനും ഒക്കെ ഉൽകൃഷ്ടം വരുത്തുന്നതുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള എഴുത്തുകളാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത് കാലിക പ്രധാന്യമുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈശോയുടെ മലയിലെ പ്രസംഗം എന്നൊക്കെ പറയുന്നത് അതൊക്കെ വളരെ ഹാർട്ട് ടച്ചിങ്ങായിട്ടുള്ള കാര്യമാണ് പ്രസംഗിക്കാൻ മാത്രമല്ല അവിടെ നമ്മൾ ഈശോയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ നേതാക്കന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ കാണുമ്പം അവർ വാക്കുകൾക്കൊണ്ട് പറയുന്നുണ്ട് പക്ഷെ അവരുടെ പ്രവർത്തികളൊക്കെ വളരെ അകലെയാണ് ഇന്ന് പക്ഷെ ഈശോയെന്ന ഒരു വ്യക്തി ദൈവപുത്രൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് പ്രവർത്തിക്കുന്നതായിട്ട് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഒത്തിരി ഹാർട്ട് ടച്ചിങ്ങായിട്ടുള്ള കാര്യമാണ് പിന്നെ പിതാവായ ദൈവത്തോടുള്ള സംഭാഷണവും ഈശോയുടെ ഓരോ പ്രവർത്തികളും പിതാവിനെ മഹത്വപ്പെടുത്തുന്നതും ഒക്കെയുള്ള ലേഖനങ്ങളൊക്കെ വളരെ മനോഹരമാണ് അതിൻ്റെ അകത്ത് ജോബിൻ്റെ പുസ്തകം എന്നു പറയുന്ന പഴയനിയമത്തിൽ ജോബിൻ്റെ പുസ്തകം എന്നു പറയുന്നൊരു പുസ്തകമുണ്ട് അത് സഫറിങ്ങിനേക്കുറിച്ച് വേദനകളേക്കുറിച്ച് ദുഃഖങ്ങളേക്കുറിച്ചൊക്കെ ഒത്തിരിയധികം പ്രതിപാദിക്കുന്നൊരു പുസ്തകമാണ് നമ്മുടെയൊക്കെ ചിന്ത നമ്മുടെ പാപങ്ങളുടെ ഫലമാണ് നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ എന്നുള്ളതാണ്

നീ ഇപ്പം അനുഭവിക്കുന്നത് പക്ഷെ ആ ബൈബിള് വായിച്ച് കഴിയുമ്പം ആ ജോബിന്റെ പുസ്തകം വായിച്ച് കഴിയുമ്പം നമുക്ക് മനസ്സിലാകും അതിനോട് മൂന്നോട്ട് വന്ന് കഴിയുമ്പം ആ ജോബും അങ്ങനെയൊക്കെ ഒരവസ്ഥയിലേക്ക് തിരിഞ്ഞ് പോകുമ്പം ഞാൻ ചോദിക്കുന്നുണ്ട് എല്ലാം നിനക്കെങ്ങനെ മനസ്സിലാകുന്നു ദൈവത്തിൻ്റെ കൃപ നിനക്കെങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ സൂര്യൻ അസ്തമിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആകാശത്തെ നക്ഷത്രങ്ങൾടെ എണ്ണം നിനക്കറിയാവോ എല്ലാം നിനക്കറിയാമെന്ന് നീ ശാഠ്യം പിടിക്കരുത് എല്ലാത്തിൻ്റേയും കാരണം അന്വേഷിച്ച് പോകുന്ന മനുഷ്യൻ്റെ പ്രകൃതിയിനെ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് ജോബ് പറയുന്ന ഒന്നു രണ്ട് വാചകങ്ങളൊക്കെ വളരെ മനോഹരമാണ് ഇത്രയും നാൾ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചിട്ട് ഒരു പ്രയാസം വന്നപ്പം ഞാനെങ്ങനെയാണ് ഈ ദൈവത്തെ തള്ളിപ്പറയുന്നത് എന്നു ചോദിച്ചുകൊണ്ട് ദൈവം ഉത്തരം പറയുന്നുണ്ട് അതുപോലെ ജോബിൻ്റെ വീട്ടുകാരൊക്കെ ജോബിനെ തള്ളിപ്പറയുന്നുണ്ട് ജോബ് അസുഖങ്ങളൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ ജോബ് ആ സഹനങ്ങളെ സ്വീകരിക്കുന്നത് ഒരു നല്ല വാചകത്തോട് കൂടിയാണ് അവിടെപ്പറയപ്പെടുന്നത് ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന് സ്തുതി അത് ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളുമൊക്കെ വരുമ്പം അങ്ങനെയൊരു ചിന്ത നമ്മുടെ മനസ്സിലൂടെ കടന്ന് പോകുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളേയൊക്കെ നേരിടാൻ സാധിക്കും ബൈബിള് എപ്പോഴും അതിപ്പോഴും ജീവിക്കുന്ന വചനമാണ് ബൈബിളെന്ന് പറയുന്നത് പുസ്തകം മറ്റെന്ത് ഗ്രന്ഥങ്ങളും വേറെ എന്ത് ഗ്രന്ഥങ്ങൾ കൊണ്ടൊന്നും അതിനോട് താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യമാണ് എനിക്കുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം വായിക്കുമ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാം മനസ്സിലാകണമെന്നൊന്നുമില്ല ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതിയ പുതിയ ആ ഒരു അൻലൈറ്റ്മെൻ്റ് ഒരു പ്രകാശം നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ബൈബിൾ വായിക്കുമ്പം അതുകൊണ്ട് എത്ര റെപ്പീറ്റ് ചെയ്ത് വായിച്ചാലും അതിലൊരു മടുപ്പും തോന്നാത്ത ഒരു ഗ്രന്ഥമാണ് വിശുദ്ധഗ്രന്ഥം അത് ബൈബിള് ദൈവത്തെക്കുറിച്ചും ദൈവീക പദ്ധതികളേക്കുറിച്ചും സഭയെക്കുറിച്ചും ഒക്കെ ഉള്ള എല്ലാ കാഴ്ചപ്പാടും ഞാൻ ഇതൊന്നും മനുഷ്യകുലത്തിന് ഒള്ള ചോദ്യങ്ങളുടെയെല്ലാം ഉത്തരം അടങ്ങിയ ഒരു സമ്പൂർണ്ണ ഗ്രന്ഥമാണ് ഈ ബൈബിള് കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതി മന്ത്രിമാരൊക്കെ അവരുടെ സഭകളിലൊക്കെ വർത്തമാനം പറയുമ്പോഴൊക്കെ ഓരോ വാചനങ്ങൾക്കോട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും അത് ബൈബിളിൻ്റെ മനോഹാരിതയാണ് മറ്റു മതസ്ഥരേപ്പോലും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രന്ഥമാണ് ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ അത് ദൈവനിവേശിതമായതുകൊണ്ടാണ് നമുക്കത് അത്രയും ഹാർട്ട് ടച്ചിങ്ങാവുന്നത് വചനത്താലൊത്തിരി അധികം സൗഖ്യങ്ങൾ നടക്കപ്പെടുന്നതാണ് വചനം വായിക്കുന്നവരും പഠിക്കുന്നവരും ഒക്കെ സൗഖ്യത്തിൻ്റെ മേഘലകളിലേക്ക് രോഗങ്ങളിൽ നിന്ന് വിമുക്തി തേടുന്നതൊക്കെ ഈ അടുത്തിടയ്ക്ക് വചനം എഴുതി പഠിക്കുന്നവരേയും ബൈബിള് റീറൈറ്റ് ചെയ്യുന്നവരേയും നോക്കി ഓരോ വാക്യങ്ങളൊക്കെ എഴുതുന്നവരേയും ഒക്കെ കാണാൻ സാധിക്കുന്നത് വളരെയധികം അത്ഭുതങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നടത്തപ്പെടുന്നത് വെറുമൊരു ഗ്രന്ഥമായിട്ട് അല്ലെങ്കിലൊരു കഥാപുസ്തകമായിട്ട് മാറ്റി വെക്കുന്നതിനേക്കാൾ അതിനെ വിശുദ്ധമായിട്ട് കരുതുവാനും വിശുദ്ധമായിട്ട് സൂക്ഷിക്കുവാനും ഒക്കെ സാധിക്കുമ്പം വായിക്കുന്നവർക്കും ബൈബിൾനേക്കുറിച്ച് പറയുന്ന വചനത്തേക്കുറിച്ച് പറയുന്നത് ഇരുതല വാൾ പോലെയാണത് അത് എടുക്കുന്നവനും മുറിയും അത് വീശുമ്പം സ്വന്തമായിട്ടും മുറിയപ്പെടും മറ്റവൻ അടുത്ത് നിൽക്കുന്നവനും മുറിയും കാരണം മറ്റുള്ളവരെ കേൾക്കുന്നവരേയും വായിക്കുന്നവരേയും ഒരു പോലെ വിശുദ്ധീകരിക്കാൻ കഴിയുന്ന വചനങ്ങളാണ് ബൈബിളിലുള്ളത് അതുപോലെ ഹാർട്ട് ടച്ചിങ്ങായിട്ടുള്ള ഒരു പുസ്തകം ഞാനിതുവരെ കണ്ടിട്ടില്ല ഞാൻ ജീവിതത്തിൽ കുറച്ചിങ്ങനെ നോവലൊക്കെ വായിക്കാനായിരുന്നു ആദ്യമൊക്കെ താൽപ്പര്യപ്പെട്ടിരുന്നത് നോവലിലൊക്കെ ഗ്രന്ധങ്ങളൊക്കെ വായിച്ചും ചുമ്മാ നമുക്ക് സമയം കളയാം എന്നുള്ളത് മാത്രമേ ഉള്ളു പക്ഷേ നമ്മളെ കൂടുതൽ ബോധിപ്പിക്കാനും നമ്മളുടെ ധാർമ്മിക മൂല്യങ്ങളേയും സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടന പോലും രൂപപ്പെടുവാൻ വചനങ്ങളൊക്കെ കാരണമായിട്ടുണ്ടെന്നാണ് പറയുന്നത് മഹാത്മാഗാന്ധിയൊക്കെ ബൈബിൾ വചനങ്ങളൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ട് ഈ ബൈബിളെന്ന് പറയുന്ന ഗ്രന്ഥം ഇനിയും വായിക്കപ്പെടണം ഇനിയത് എത്താത്ത ഇടങ്ങളിലേക്കൊക്കെ എത്തിച്ചേരണം എന്നുളളതാണ് നമ്മുടെ ഒരു ആഗ്രഹം ലോകത്തിൻ്റെ അവസാനം വരെ ഈശോയുടെ ഈ വചനങ്ങൾ അന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു വചനം അതിന്നും ലൈവായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുകയാണ്